ആ വാ ഇരിക്ക് എന്താണ് വിശേഷം ഡ്രസ്സ് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടാണ് എടുത്തത് അവിടെയാണ് കുറച്ച് വില കമ്മി കല്യാണ സാരി കളക്ഷനൊക്കെ അവിടെയാണ് കുറച്ച് വെയ്റ്റ് ചെയ്തു നിന്നിട്ട് അങ്ങോട്ടു പോയി ഗോൾഡ് നമ്മളെ ഇവിടുന്ന് കല്യാൺസാണ് ആ എല്ലാവർക്കും തന്നെ സാരികളൊക്കെ അവിടെനിന്നാണ് എടുക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു കൊയമ്പത്തൂരാകുമ്പോൾ ആ ആ അവിടെനിന്നും കിട്ടുമായിരിക്കും ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് ആ അതെ ആ ഓ മുണ്ടും ഷർട്ടിന്റേയും കാര്യമല്ല പറഞ്ഞത് സാരികളു ടേയും കുട്ടികളുടേയും ലേഡീസിൻ്റെ കളക്ഷനൊക്കെ കോയമ്പത്തൂരിൽ നല്ല കളക്ഷനുണ്ട് കിട്ടുന്നുണ്ടവിടെ കല്യാണപ്പട്ടൊക്കെ ആ അവിടെ ഇവിടെ ഇരുപത്തയ്യായിരം രൂപയുള്ളതിന് അവിടെ അയ്യായിരത്തിന് ആറായിരത്തിനൊക്കെ കിട്ടുന്നുണ്ട് സാരി കല്യാണത്തിന് കല്യാണ സാരിക്ക് ഒരു എട്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ആ ആ കളക്ഷനുണ്ട് നല്ല കളർ കളക്ഷനുണ്ട്

ഗോൾഡിവിടെ നമ്മൾ കല്യാണിൽനിന്നാണ് എടുത്തത് കല്യാണിൽ നിന്നാകുമ്പോൾ പണിക്കൂലി കുറവുണ്ടല്ലോ അവിടെ മൂന്ന് ശതമാനം എത്രയോ പണിക്കൂലിയുള്ളു കളക്ഷനും ഉണ്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് കിട്ടും

ഗോൾഡ് നിങ്ങളല്ലേ എടുക്കേണ്ടത് അത് അങ്ങനെ എന്നാൽ മാല എടുക്കേണ്ടി വരും കമ്മൽ വള മോതിരം അത്രതന്നെ അത്ര തന്നെ എടുക്കുക പാദസരം എടുക്കും പിന്നെ വേറെയെന്താണ് ഇതുതന്നെ എടുക്കാനില്ലേ നമുക്ക് വേറെ പന്ത്രണ്ട് വളയൊക്കെ എടുക്കാം രണ്ടു കൈക്കും ഒരാറാറ് വള വച്ചിട്ട് പന്ത്രണ്ട് വള ആവില്ലേ കല്യാണം കല്യാണമല്ലേ ഗോൾഡിനായി ഞങ്ങളവിടെയൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയെടുത്തു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഗോൾഡ് എടുത്തിട്ടുണ്ട് ആ ഒരു കല്യാണമല്ലേ ഉള്ളു പാവം കുട്ടി നമ്മടെ കുട്ടിയല്ലേ വളയൊക്കെ അവളെടുത്തതാണ് പിന്നെ ലോണെടുത്തു കുറച്ച്

അ ആ അല്ല അവിടെ പണിക്കൂലി കുറവായതുകൊണ്ട് നമുക്കത്രയും നമ്മളെടുക്കുന്നതിനനുസരിച്ച് കാശ് കുറച്ച് കുറച്ചു കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവരെ വച്ച് കംപെയർ ചെയ്യുമ്പോൾ

ആ രണ്ടു സെറ്റാണ് സാധാരണ എടുക്കാറ് മാല താലി മാത്രമേയുള്ളു താലി അവരല്ലേ എടുക്കുന്നത് നമ്മൾ മൂന്ന് ഷോ മാല നെക്ലേസുകൾ എടുക്കേണ്ടി വരും നെക്ലേയ്സ് ആ അത്രയൊന്നും വരില്ല എന്നാലും എന്നിട്ടെന്താണ് ഇന്നു പോകുവാനാണോ ഓ പോവുമ്പോൾ വിളിച്ചാൽ മതി ശരി